ഞാനൊരു ഫോൺ ബുക്ക് ചെയ്തിരുന്നു അത് ഓൺലൈനിൽ നിന്നാണ് ബുക്ക് ചെയ്തിരുന്നത് അത് നല്ല ഫോണാണ് ഉപയോഗിക്കാനും നല്ലതാണ് നല്ല സൗണ്ടും നല്ല സ്പീക്കറും എല്ലാമുള്ള നല്ല ഇതുള്ള ഫോണാണ് അതുക്കൊണ്ട് പിന്നേ ഓൺലൈനിൽ എൻ്റെ കൂട്ടുകാരി ബുക്ക് ചെയ്ത് തന്നതാണ് നല്ല അടിപൊളി ഫോണാണ് അതുകൊണ്ട് കൂട്ടുകാരി ചെയ്തപ്പം ഞാനും അതുപോലെ ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് വേഗം ചെയ്തു നല്ലൊരു ഫോൺ കിട്ടുകയും ചെയ്തു നല്ല സൂപ്പർ ഫോണാണ് നല്ല ക്ലിയറും പിന്നെ ഫോട്ടോ എടുക്കാനാണെങ്കിലും വീഡിയോയ്ക്കാണെങ്കിലും എല്ലാത്തിനും നല്ല തരം നല്ല ഫോണാണ് അതുപോലത്തെ വാ വാങ്ങാനാണ് എൻ്റെ വേറൊരു കൂട്ടുകാരി അതുപോലെ പറഞ്ഞിട്ടുണ്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് സൂപ്പർ ഫോണാണ് അതുകൊണ്ട് അത് തന്നെ ബുക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട് നല്ല കമ്പനി ഫോണാണ് ഈ വാങ്ങിയിട്ട് ഒരു അഞ്ചെട്ട് മാസമായി പക്ഷെങ്കിൽ നല്ല ഫോണാണ് അത് ഇപ്പഴും ഉപയോഗിക്കുന്നുണ്ട് ഒരു കമ്പ്ലയിൻ്റും ഇല്ല താഴെ ഒന്നു രണ്ടു പ്രാവശ്യം വീണു എന്നെങ്കിലും പുതിയത് ഒരു കേടുപാടുല്ല പിന്നെ ചില്ലുപോലും അതിൻ്റെ പൊട്ടിയിട്ടില്ല നല്ല സൂപ്പർ സാധനമാണ് അതുകൊണ്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതാണ് എല്ലാ സാധനങ്ങളും ഓൺലൈനിൽ ബുക്ക് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം